തെയ്യത്തെ കുറിച്ച് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് തെയ്യത്തോട് അനുബന്ധിച്ച് നാട്ടിൽ നടത്തി വരുന്ന കലാപരിപാടികൾ എൻ്റെ നാട്ടിൽ ജനുവരി അവസാന വാരത്താണ് അവസാന വാരത്തിലാണ് തിറ മഹോത്സവം അതായത് ആദ്യ കാലങ്ങളിലൊക്കെ രണ്ട് മൂന്ന് ദിവസങ്ങളിൽ നടന്നിരുന്ന പരിപാടി ഇപ്പോൾ നാടിൻ്റെ വികസനം പോലെ തന്നെ ഉത്സവത്തിൻ്റെയും വികസനവുമായി എന്ന് തന്നെ പറയാം ഇപ്പോൾ അത് ഏഴ് ദിവസങ്ങളിലെ പരിപാടിയാണ് നാടിനും നാട്ടുകാർക്കും ഉണർവ്വ് നൽകിക്കൊണ്ട് ഉത്സവരാവുകൾ വന്നെത്തുകയാണ് ഏഴ് ദിവസം വിപുലമായ പരിപാടിയോടെ തന്നെയാണ് ഉത്സവം ആഘോഷിച്ച് വരുന്നത് അവസാന രണ്ട് ദിവസങ്ങളിൽ മാത്രമാണ് തെയ്യത്തെ നമുക്ക് കാണാൻ പറ്റുന്നതെങ്കിൽ കൂടി ആദ്യ ദിവസങ്ങളിൽ ഒക്കെ ചെറിയ കുട്ടികളുടെയും വലിയ ആൾക്കാരുടെയും പരിപാടി ഗാനമേള അങ്ങനെ എല്ലാ പരിപാടിയുമായി ഒരു നാടിനെ തന്നെ സന്തോഷത്തിലാക്കി ഒരു മഹാഘോഷയാത്രയായി ഉത്സവങ്ങളുടെ അവസാന നാളിന് തൊട്ട് മുമ്പായി നാട് മൊത്തം സഞ്ചരിച്ച് കൊണ്ടാണ് ക്ഷേത്രാങ്കണത്തിൽ അതെത്തിച്ചേരുന്നത്